ഇപ്പോൾ മതം എങ്ങനെയാണ് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ മതപരിപാടികൾ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആൾകാർ പോകുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ ഹിന്ദുക്കളിൽ നടന്നുവരുന്ന ഉത്സവങ്ങൾ അപ്പം മെയിനായിട്ട് കുറേ ഉത്സവങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇഷ്ടംപോലെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടെ ആണ് വരിക ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അല്ലാണ്ട് ഇപ്പോൾ ജാതിമതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സമയങ്ങളിൽ ഒന്നുമില്ല അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ടും അവരുടെ ഓരോ റൈഡുളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആകാശത്തൊട്ടിൽ അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാറ്റിലും കയറാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ മതക്കാരും ഇപ്പോൾ ക്രിസ്ത്യനെന്നോ മുസ്ലീമെന്നോ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ എല്ലാ മതക്കാരും ആ സമയത്താണ് കൂടുതലായിട്ടും ഒത്തുചേരുന്നതൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം സമയങ്ങളിലവർക്ക് മതമോ ജാതിയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല അവരെല്ലാവരും ഒരുമിച്ചാണ് ഈ ഉത്സവമൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെന്തെങ്കിലുമൊക്കെ പരിപാടി ഇപ്പം ബേപ്പൂർ അതായത് ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുക നടക്കുമ്പം അവിടെ എല്ലാവരുംകൂടി ഒരുമിച്ചാണ് വരിക നമ്മൾ ഇന്ന മതക്കാർ എന്നൊന്നും അങ്ങനത്തൊരു ഇതില്ലാണ്ടാണ് വരിക അപ്പം അവിടെ എല്ലാവരും ഒരുമിച്ചായിരിക്കും എല്ലാ മതക്കാരും ഒരുമിച്ചാണ് വരുന്നത്